കടുത്ത വേനലിലും തണുപ്പിലും കായ്ക്കുന്നതും കായ്ക്കാത്തതുമായ പല തരം ഇനം ചെടികളുണ്ട് കടുത്ത വേനലുകളിൽ അതായത് വെള്ളം അധികം ആവശ്യം ഇല്ലാതെ ഒട്ടനവധി ചെടികൾ നമ്മുടെ ഇടയിലുണ്ട് ഒരുദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയില്ലേ ആ ഡ്രാഗൺ ഫ്രൂട്ട് ചെടീന്ന് പറഞ്ഞാൽ നമ്മളതിന് അധികം വെള്ളം അത് ഒരു കള്ളിമുൾച്ചെടി അതായത് നമ്മുടെ കാക്ടസ് മോഡലാണ് ആ ചെടി ആ ചെടിയെ സംബന്ധിച്ചിടത്തോളം അധികം വെള്ളം അതിനാവശ്യം ഇല്ല അത് നമ്മുടെ ടെറസിൻ്റെ മേളിലോ ഏതെങ്കിലും വീടിൻ്റെ സൈഡിലോ ഒന്ന് കൊണ്ട് വെച്ചാൽ മതി പക്ഷേ അതിന് മെയിനായിട്ടും നല്ലത് പോലെ വെയിൽ വേണം വെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഗ്രോത്തിന് ഒരു പ്രോഗ്രസ് ഉണ്ടാവത്തുള്ളു അതുകൊണ്ടാണ് വെയിൽ വേണമെന്ന് പറയുന്നത് അതിന് അധികം നമ്മൾ വെള്ളംത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല അങ്ങനെ വേനൽ വേനൽക്കാലത്ത് അതിന് സർവൈവ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മഴക്കാലത്ത് ഈ പത്ത്മണി ചെടികൾ എന്ന് കേട്ടിട്ടില്ലേ പത്ത്മണി ചെടികൾടെ കാര്യത്തിലാണെങ്കിൽ മഴക്കാലത്ത് അതായത് അധികം വെള്ളം ചെന്നാൽ അത് ചീഞ്ഞ് പോവും കാരണം നമ്മൾ മഴയുള്ള സമയത്ത് ഈ പത്ത് മണി ചെടികൾ വെക്കുമ്പോൾ ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിലെ പൂ അധികം ഉണ്ടാവാ ഉണ്ടാവാറില്ല അതിൻ്റെ പൂക്കൾ അതായത് മൊട്ട് വന്നാലും അത് വിരിയത്തില്ല കാരണം വെള്ളം വീഴുമ്പം അതിന് വിരിയാനുള്ള അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി പോവുന്നാണ് ഞാൻ നി നിരീക്ഷിച്ചിടത്തോളം മനസ്സിലാക്കിയത് അതുകൊണ്ട് മഴ സമയം വരുമ്പം നമ്മൾ ആ ചെടി എടുത്ത് മഴ വീഴുന്ന ആ സ്ഥലത്ത് നിന്ന് നമ്മൾ ഷേഡിൻ്റെ അടിയിലോ എവിടെയെങ്കിലും വെക്കുന്നതായിരിക്കും നല്ലത് പിന്നേ ആ അതായത് നല്ല വരണ്ട കാലാവസ്ഥക്ക് ചേ വെള്ളം അധികം ആവശ്യമായിട്ടുള്ള ചെടികൾ ചെടികളെ സംബന്ധിച്ച് നമ്മൾ അതിന് രാവിലെയും വൈകിട്ടും എപ്പോഴും പൊതുവെ പറയാറ് രാവിലെകളിൽ അതായത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചെടികൾ നനക്കുന്നതായിരിക്കും അത്യുത്തമം കാരണം ചെടികൾ പിന്നെ ആ വേനൽ വേനൽ സമയത്ത് സ് സൂര്യൻ്റെ ചൂട് വളരെ കൂടുതലായിരിക്കും അപ്പം ആ സൂര്യൻ്റെ ചൂട് അടിക്കുമ്പം ഈ ചെടികൾക്ക് പ്രതിരോധിക്കാൻ നമ്മൾ ഈ രാവിലെ ഒഴിച്ച വെള്ളമാണ് ഉപയോഗപ്രദമാകുന്നത് അത് ത അത് കാരണം ഈ രാവിലെ ഒഴിക്കുന്ന വെള്ളം കൊണ്ട് അതിന് വൈകുന്നേരം വരെ ഈ ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കും അങ്ങനെ ചൂട് കാലത്ത് നമ്മൾ രാവിലെയും വൈകിട്ടും ചെടികൾ നനച്ച് കൊടുക്കുക പിന്നെ മഴയുള്ള സമയങ്ങളിൽ ചെടികളെ പിന്നെ അത് ഒരു ആശ്വാസമുള്ള സമയം തന്നെയാണ് മഴയുള്ള സമയം എന്ന് പറഞ്ഞാൽ കാരണം നമ്മൾക്ക് ചെടിയുടെ പുറകെ അധികം ചിലവഴിക്കേണ്ടത് വരത്തില്ല ഇടക്കൊന്ന് ചെ ചെടികളെ നോക്കണം അതിൻ്റെ വളർച്ച നോക്കണം വളർച്ച ചെല ചെടികൾ ഉണ്ട് നമ്മൾ ഇടക്കിടക്ക് വെട്ടി വെട്ടി നിർത്തുക എന്നുള്ളത് ആ ചെടികൾ പെട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ വെട്ടി നിർത്തിയാൽ മാത്രമേ ആ ചെടികൾ നല്ലത് പോലെ വളരത്തൊള്ളു അപ്പോൾ മഴക്കാലത്ത് ഞാൻ പറഞ്ഞ് വന്നത് നമ്മൾ വെള്ളം ഒഴിക്കണ്ട എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടും പക്ഷേ എന്താണേലും അതിന് ഇടക്കിടക്ക് വള വളങ്ങൾ ഒക്കെ ഇട്ട് കൊടുക്കാൻ നമ്മൾ മറന്ന് പോകരുത് ഒരിക്കലും മഴക്കാലത്ത് ചെടിയെ സംബന്ധിച്ചോളോളം ചെടികൾക്ക് വളരെ സന്തോഷമുള്ള കാ ഒരു കാലം തന്നെയാണ് അങ്ങനെ മഴക്കാലത്തും വേനൽക്കാലത്തും പ്രത്യേക തരത്തിൽ നോക്കുന്ന പല ഇനം ചെടികൾ നമ്മൾടെ ഇടയിൽ ഉണ്ട്